ഞാൻ പൊതുവെ പണം വിഷയത്തിൽ അതായത് ഒരു അലസത കാണിക്കുന്നൊരു വ്യക്തിയാണ് പക്ഷേ ഈ അടുത്ത കാലത്തായി സ്വന്തമായി ജോലിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാനത് എൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ കുറച്ചും കൂടെ കൂടുതൽ കൈകാര്യം ചെയ്യാൻ തുടങ്ങി പൈസ കുറച്ച് കൂടെ കൂടുതൽ സൂക്ഷിച്ച് ഞാനുപയോഗിക്കാൻ തുടങ്ങി അപ്പം ഞാനതിന് വേണ്ടീട്ട് ആദ്യം തന്നെ ചിലപ്പോൾ എല്ലാം നമുക്ക് അറിയണംന്നില്ലല്ലോ അതായത് ഇപ്പോഴത്തെ നമുക്ക് സേവിങ്സ് നമ്മളൊരു പൈസ സേവ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ കൂടുതലായും ഉപയോഗിക്കേണ്ട അതായത് ഒരു സെയ്ഫായിട്ടുള്ളൊരു മാർഗമെതൊക്കെയാണന്നൊക്കെ നമുക്ക് എല്ലാവർക്കറിയണന്നൊന്നൂല്ല അപ്പം ഞാൻ സോഷ്യൽ മീഡിയേൽ നിഖിൽ എന്ന് പറയുന്നൊരു ഒരു യുട്യൂബറ് ഒരു സാറുണ്ട് പുള്ളീടെ വീഡിയോ ഞാൻ ഫോളോ ചെയ്യാറുണ്ട് പുള്ളി നമുക്ക് കുറെ ഉപകാരപ്രദമായ കുറെ വീഡിയോസ് അയിനാത്തിടാറുണ്ട് അതായത് നമ്മൾ വീട്ടമ്മമാർ അതായത് ഒരു വരുമാനം ഇല്ലാത്തൊരാൾ വരെ എങ്ങനെ പൈസ സേവ് ചെയ്യാം അല്ലെങ്കിൽ പതിനായിരം രൂപ വരുമാനമുള്ള ആൾ എങ്ങനെ മാസം ഒരായിരം രൂപേങ്കിലും സേവ് ചെയ്യണന്നൊള്ളതിനെക്കുറിച്ച് പിന്നെ നമ്മുടെ എസ് ഐ പി അക്കൗണ്ട്സിനെക്കുറിച്ചും മ്യൂച്വൽ ഫണ്ട്സ്കളെ കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ നമുക്ക് പറഞ്ഞ് തരുന്നുണ്ട് അതുപോലെ തന്നെ പൈസ എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് കിട്ടുന്നതിൻ്റെ പകുതിയിലല്ല കാൽഭാഗം നമുക്ക് സേവ് എല്ലാം ചിലവാക്കാനുള്ളതെല്ലാം നമ്മുടെ നീഡ്സും വണ്ട്സും നമ്മൾ തരം തിരിക്കുകയും അതിനെ നമ്മൾ ഏത് ഏതാണോ നമുക്കത്യാവശ്യമായിട്ട് വേണ്ടത് ഏതാണോ നമുക്ക് പിന്നത്തേക്ക് ചെയ്താലും കുഴപ്പോല്ലാന്ന് നമ്മൾ മാറ്റി വെക്കേണ്ടത് ഇതിനക്കെ നമ്മൾ എങ്ങനെ ലിസ്റ്റ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചും പിന്നെ ഇന്ന് സേഫായിട്ടുള്ള സമ്പാദ്യ നിക്ഷേപ പദ്ധതികൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പറയാറുണ്ട് ഞാനത് ഫോളോ ചെയ്യാറുമുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ഞാൻ ആ നടപടി ക്രമത്തിൽ കൊണ്ട് വരാറുമുണ്ട്